ആ എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടൊരു ആണ് ഞാൻ ഔസ്ട്രേലിയയിലാണ് അപ്പോൾ പിന്നെ എനിക്ക് ഈ ഈ പരിസരത്തൊന്നും പറ്റിയ ഒന്നും അത്ര എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ താങ്കളുടെ സഹായം വച്ച് എനിക്ക് എല്ലാം ഒന്ന് സ്ഥലങ്ങൾ ഒന്ന് കാണിച്ച് തരാൻ പറ്റുമോ അതായത് ഒരു നല്ല നല്ല വിശപ്പ് ഉണ്ട് അപ്പോൾ ഒന്ന് ഫുഡ് എവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക നോൺവെജും എല്ലാ ഐറ്റം ഒരു വെറൈറ്റി കിട്ടണ കുറച്ച് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും കുഴപ്പമില്ല ഓ എന്തായാലും കുഴപ്പമില്ല ട്രഡിഷ്ണലോ എന്തായാലും കുഴപ്പമില്ല ഓഹോ എക്സ്പെൻസിവ് ആയിട്ടുള്ള അല്ലേ ദൂരം ഉണ്ടോ ഇവിടെ നിന്ന് അതെയോ ഓഫറോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലേ ഓഫറ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ അവിടെ എന്നാലും വെറുതെ പിന്നെ താമസിക്കുന്ന ഇടങ്ങൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ആ റെസ്റ്റോറൻ്റ് തന്നെ ഇത് ആണല്ലേലും ഓക്കെ അതിൻ്റെ റേറ്റ് എങ്ങനെ എന്താ പറയുക കാണാനുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെ ആണ് അവിടെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസ് പോലെ അല്ല ബീച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ടെക്സ്റ്റച്ചറും അങ്ങനെയൊക്കെ എങ്ങനെ ആൾക്കാർ കലാപരിപാടി ഒന്നും ഉണ്ടാവില്ലല്ലോ വളരെ നന്ദി താങ്കളുടെ ഈ പ്രഷ്യസ് ടൈമിന്